ഹലോ ഹലൊ സാർ നമസ്കാരം ഗ്യാസ് ഏജൻസിയല്ലേ ആ സാർ ഞാൻ പത്തനം തിട്ട ജില്ലയിൽനിന്നാണ് വിളിക്കുന്നത് സാർ ഞാൻ ഈ ഈയിടെ പുതിയതായിവിടെ താമസത്തിലേക്ക് നഗരത്തിലേക്ക് വന്ന ആളാണ് സാർ സത്യം പറഞ്ഞ് കഴിഞ്ഞാലെന്റെ ഗ്യാസ് സിലിണ്ടർ ഡെലിവറി വിലാസം അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ടായിരുന്നു അപ്പം അത് അത് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു സാറിനെ വിളിച്ചത് സാറെന്റ ഉപഭോക്ത ഐ ഡി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറും പുതിയ വിലാസത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ ഞാൻ താമസിക്കുന്നത് ബോതലയെന്ന് പറയുന്ന വീട് പേര് കേട്ടൊരു പ്രസ്ഥാനത്തിന്റെ അടുത്താണ് അപ്പോൾ അവിടെ ആയിട്ടാണ് എന്റെ വീട് അപ്പോൾ പുതിയ വിലാസങ്ങൾ എന്റെ പേര് ലക്ഷ്മി എന്നാണ് പുതിയതായി വന്നത് തിരുവല്ലയിലാണ് എന്റെ വീട്ട് പുതിയ താമസത്തിന്റെ വീട്ട് വന്ന പേര് ലക്ഷ്മീ നിവാസ് എന്നാണ് അപ്പോൾ അടിയന്തരമായി എനിക്കതൊന്ന് അപ്ഡേറ്റ് ചെയ്ത് തരണമെന്ന് ഞാൻ പെട്ടെന്നുതന്നെ പ്രോസസ്സ് ചെയ്ത് തരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് സാർ ഓക്കെ സാർ നന്ദി